ചെടികളും മരങ്ങളും എൻ്റെ ഒരു വീക്നെസ്സാണ് നല്ല രീതിയിലുള്ള പുഷ്പങ്ങളുണ്ടായി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം തോട്ടത്തിൽ പുഷ്പ്പിച്ചു നിൽക്കുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ ഉള്ള സന്തോഷം അതൊക്കെ നല്ലൊരു അനുഭൂതി തരുന്നൊരു കാര്യമാണ് പിന്നെ എനിക്കെപ്പോഴും ചെടികളും മരങ്ങളും വെച്ചു പിടിപ്പിക്കാനാഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും എൻ്റെ തോട്ടത്തിൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടാകുന്ന ചെടികളും മരങ്ങളും തണൽ മരങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിറച്ചു വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെതന്നെ കുടുംബത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണിവിടെ എൻ്റെ വീട്ടിലുള്ളതും അപ്പോൾ ചെടികളും മരങ്ങളും നമ്മുടെ വീട്ടുകളിൽ മാത്രമല്ല പുറമേയുള്ള റോഡുകളിലൊക്കെ വെച്ചു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യ താപത്തിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ ചെടികളും മരങ്ങളും നമ്മളെ നന്നായിട്ട് സഹായിക്കും പിന്നെ അതു പൂത്തു നിൽക്കുന്നതാണ് അതിലേക്കാളും വലിയ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും പറ്റുമെന്നുണ്ടെങ്കിൽ ചെടികളും മരങ്ങളും നമ്മുടെ തോട്ടത്തിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലും വെച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കുക